ആ ഇത് മിൻത്രയുടെ ഓഫീസല്ലേ ഞാന് രണ്ട് മാസം മുന്നേ ഒരു ബ്ലൂ കളർ ചുരിദാറ് ഓർഡര് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വച്ചാല് ഞാനത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഓർഡറ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകഴിഞ്ഞിട്ട് ഞാന് റീഫണ്ട് അവര് റീഫണ്ടിനു ചോദിച്ചിട്ട് എന്താ പറയുക ഇവിടെ അടുത്തുള്ള ഓഫീസിൽ ചെന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു അപ്പം അവര് പറഞ്ഞു ഒരു രണ്ട് ആഴ്ച്ചക്കുള്ളിൽ എന്തായാലും റീഫണ്ട് ചെയ്തിട്ട് തെരും എന്നാണ് അവര് പറഞ്ഞിരുന്നത് പക്ഷെ രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ടും റീഫണ്ട് ചെയ്ത ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു പക്ഷെ അവര് ഫോണെടുക്കാൻ എടുത്തില്ല പിന്നീട് ഞാന് രണ്ടും മൂന്നും തവണ വിളിച്ചപ്പോഴും അവര് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഞാൻ അവരുടെ ഓഫിസില് നേരിട്ട് ചെന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ അവരുടെ ഓഫീസിൽ ചെന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടും റീഫണ്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഓഫീസിലേക്ക് മെയിൻ ഹെഡ്ഓഫീസിലേക്ക് വിളിച്ചിട്ട് കംപ്ലയിന്റ് ചെയ്യാനാണ് പറഞ്ഞത് പരാതി കൊടുക്കാൻ പറഞ്ഞു ആ അതെ അതാണ് ഞാൻ വിളിച്ചത് ഇത് അവരെ ഒരു ഞാനൊരു അതെ രണ്ടുമാസമായി ഞാന് നീല ചുരിദാറ് വാങ്ങിയിട്ടും ഇത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഓർഡറ് ക്യാൻസൽ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ റീഫണ്ട് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ആ അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടത് ഞാൻ അതില് അതില് റീഫണ്ട് എന്നുള്ള ഓപ്ഷൻസ് വേറെ സെപ്പറേറ്റായിട്ട് വേറിട്ട് നിർത്തിട്ട് കൊടുത്തിട്ടുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഓർഡർ ക്യാൻസലാക്കിയിട്ടുണ്ട് ഇവിടെ ഓഫീസില് രണ്ടുമൂന്നു വട്ടം പോയിട്ട് പറയുകയും ചെയ്തു അപ്പോഴ് പിന്നീടാണ് അവർ പറഞ്ഞത് ഇതുപോലെ വന്നിട്ട് പറയണമെന്നാണ് പറഞ്ഞത് ആ ഓഫീസിലേക്ക് അവരാണ് നമ്പറ് തന്നത് അപ്പോൾ എന്താന്നുവച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് ക്യാൻസൽ ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടു മാസമായി ഞാനത് ഓർഡർ ചെയ്തിട്ടും ക്യാൻസൽ ചെയ്തതും രണ്ടു മാസായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റീഫണ്ട് എത്രയും പെട്ടന്ന് കിട്ടിയാൽ ഉപകാരാവുമായിരുന്നു ഓക്കെ നന്ദി